ആ അറിയാവുന്ന സ്പോർട്സ് തരമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് സ്പോർട്സ്ന്ന് പറഞ്ഞാൽ ക്രിക്കറ്റാണങ്കിൽ തന്നെ സച്ചിന് കോഹ്ലി ആ വിരാട് വിരാട് കോഹ്ലി സച്ചിൻ ധോണി അങ്ങനേ ഉള്ള ഒരുപാട് ആളുകള്ണ്ട് ഈ ക്രിക്കറ്റ് ടീമില് പിന്നെ അവരൊക്കെ നേടിയ ബഹുമതീന്ന് പറഞ്ഞാല് ഇപ്പോന്ന് പറഞ്ഞാൽ സച്ചിനൊന്നും ക്രിക്കറ്റ് കളിക്കുന്നില്ല അതിൽ നിന്ന് വിരമിച്ച് വിരമിച്ചിറ്റണ്ട് അപ്പോൾ സച്ചിനൊക്കെ ചെറിയ കാലം മുതലേ പിന്നെ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് അങ്ങനെ അദ്ദേഹം ക്രിക്കറ്റിൻ്റെ മേഖലയിലേക്ക് വരികയും ക്രിക്കറ്റ് പഠിച്ച് അങ്ങനെ ക്രിക്കറ്റൊക്കെ കളിച്ച് ഇന്ത്യായിട്ടും ഇന്ത്യേൻ്റെ ടീമായിട്ടും പാകിസ്താനികളായിട്ടും ഓരോ ആളുകളൊക്കായിട്ടും ഇദ്ദേഹം ക്രിക്കറ്റ് കളിച്ചിട്ടൊക്കെയുണ്ട് അങ്ങനെ ഇപ്പ വിരമിക്കുന്ന സമയത്ത് ഒരുപാട് സമ്മാനങ്ങളാണേൽ തന്നെ ട്രോഫികളാണെൽ തന്നെ അദ്ദേഹത്തെ തേടി വരികയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ട്രോഫികളാണേൽ തന്നെ മെഡലുകളൊക്കെ തന്നെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഈ സച്ചിൻക്കക്കെ അതൊക്കെ അവരുടെ അദ്ധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് തന്നെയാണ്